ശ്രീകൃഷ്ണ ജയന്തി നമ്മളാഘോഷിക്കുന്നത് നമ്മുടെ പ്രദേശത്തു നിന്നും

അതില് കൊച്ചു കുട്ടികളും കൊച്ചു കുട്ടികൾ ബാലികാ ബാലന്മാരൊക്കെ കൃഷ്ണൻ്റെയും രാധയുടെയും ഒക്കെ വേഷം ഗ വേഷം അണിഞ്ഞ് ഘോഷയാത്രയായി ഘോഷയാത്ര അതിൻ്റെ കൂട്ടത്തില് നിശ്ചല ദൃശ്യങ്ങളൊക്കെ കാണും അതായത് കൃഷ്ണനുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള നിശ്ചല ദൃശ്യങ്ങളൊക്കെയായിട്ട് നമ്മള് ഇവിടെ നിന്നും ഒരു മൂന്നു കിലോമീറ്റർ ദൂരം അങ്ങ് കോഴഞ്ചേരിയില് ഘോഷയാത്രയായിട്ട് പോകാറുണ്ട് അങ്ങനെ പല സ്ഥലത്തു നിന്ന് വരുന്ന ഘോഷയാത്രകൾ എല്ലാം കൂടെ അവിടെ സ് ശ്രീകൃഷ്ണ കലാ മന്ദിർ എന്ന് പറയുന്ന അവിടെ സംഗമിച്ച് അവിടെ പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട് എല്ലാ വർഷവും ഈ നാട്ടിൽ നിന്നും എല്ലാ ആളുകള് ഈ ഘോഷയാത്രയില് പങ്കെടുക്കാറുണ്ട് അതുപോലെ അടുത്തുള്ള അമ്പല അമ്പലത്തിലാണെങ്കിലും ഒരു മുരുകൻ്റെ അമ്പലവും ഒരു കൃഷ്ണൻ്റെ അമ്പലവും ഉണ്ട് ഇവിടെയും അതുപോലെ ഉത്സവങ്ങൾ വരുമ്പോഴാണെങ്കിലും നാട്ടിലുള്ള എല്ലാ ആളുകളും ഇതിലെല്ലാം ഒരുപോലെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകാറുണ്ട് ഇതൊക്കെ നമ്മളും നമ്മൾക്കും എന്നും സന്തോഷമുള്ള ആഘോഷങ്ങള് തന്നെയാണ് അതുപോലെ അമ്പലത്തില് ഉള്ള പ്രധാന വഴിപാടുകളായ ഗണപതി ഹോമം നീരാഞ്ജനം പുഷ്പാഞ്ജലി അതൊക്കെ നമ്മളും നട ചെയ്യിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത പ്രദേശമായ ചെറു ചെറുകോൽപുഴ എന്നു പറയുന്ന സ്ഥലത്ത് ഒരു ഹിന്ദുമത കൺവെൻഷൻ എല്ലാ വർഷവും നടക്കാറുണ്ട് അത് എട്ട് ദിവസമാണ് അതായത് ഒരു ഞായറാഴ്ച മുതൽ അടുത്ത ഞായറ് വരെ അങ്ങനെ എട്ടു ദിവസം അത് ദൂര ദേശങ്ങളിൽ നിന്നുപോലും ആളുകള് അതിന് ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ വളരെ വിശിഷ്ടരായുള്ള മഹത് വ്യക്തികളൊക്കെ അവിടെ വന്ന് സംസാരിക്കാറുണ്ട് അതൊക്കെ കേൾക്കാൻ നമ്മളൊക്കെ പോകാറുമുണ്ട്